വീഡിയോ ഗെയിമുകള് കേവലം സമയം കൊല്ലികളാണ് എന്ന് ഞാന് കരുതുന്നില്ല അതിന് അതെ എന്ന് അല്ല അല്ലാ അല്ലെങ്കിൽ അതെ എന്ന ഒരു ഒറ്റ ഉത്തരത്തില് ഫിഫ്റ്റി ഫിഫ്റ്റി പേര്സെൻ്റേജിൽ നിര്ത്താന് സാധിക്കില്ല കാരണം വീഡിയോ ഗെയിമുകള്ക്ക് ദൂഷ്യ വശങ്ങളുമുണ്ട് ഗുണ ഫലങ്ങളുമുണ്ട് വീഡിയോ ഗെയിമുകള് സമയം കൊല്ലികള് മാത്രമായി മാറാറുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട് എന്ന് പറയാൻ എന്റെ കാരണങ്ങൾ ഇതാണ് ചില ഗെയിമുകള് അത് മാനസികമായ ഉല്ലാസത്തെ മാത്രം മുന്നില് നിര്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ളവരുമായുള്ള നിയമങ്ങളോ അല്ലെങ്കില് മറ്റുള്ളവരോടുള്ള നമ്മൾ സമ്പര്ക്കം പുലര്ത്താൻ ആശയ സമ്പര്ക്കം പുലര്ത്തേണ്ട രീതികളോ ഒന്നും മാനിക്കാതെ ചെയ്യപ്പെടുന്ന പല വീഡിയോ ഗെയിമുകളുണ്ട് ആ ഗെയിമുകളൊക്കെ സമയം കൊല്ലികള് മാത്രമായി തീരാറുണ്ട് പലപ്പോഴും ഇനി പല തരത്തില് അത് ആള്ക്കാരിലെ റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അഡ്വേസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ സമയം കൊല്ലികള് ഗെയിമുകള് ശരിക്കും പറഞ്ഞാല് നമ്മള് ബാന് ചെയ്യപ്പെടേണ്ടതാണ് കാരണം അതായത് ഇതിന് നല്ല വശങ്ങളും ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത് പോലെ തന്നെ സമയം കൊല്ലികള് മാത്രമല്ല ചില ഗെയിമുകള് നമുക്ക് നമ്മുടെ മാനസിക ഉല്ലാസം മെച്ചപ്പെടുത്തുന്നതിനോടു കൂടി നമ്മുടെ സ്കില് ഡെവലപ്പ്മെന്റ് വളരെയേറെ സഹായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ടൌണ്ഷിപ്പ് എന്നൊരു ഗെയിം അതിൽ നമുക്ക് ടാസ്ക്കുകളുണ്ട് ആ ടാസ്ക്കുകൾക്ക് സമയമുണ്ട് ആ സമയത്തിന് അനുസരിച്ചു ഓരോ ടാസ്കും തീര്ക്കണം ഇത് നമ്മുടെ മൈന്റിനെ ഒരൂ സമയബന്ധിതമായി ഓരോ ടാസ്ക്കുകൾ തീര്ക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം അതിന് വേണ്ടി എന്തെക്കെ കാര്യങ്ങൾ ഞാന് ശ്രമിക്കണമെന്നുള്ള ഒരു എക്സ്പീരിയന്സ് ലഭിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെയാണ് പല ഗെയിമുകള് ഈ ലുമോസിറ്റി പോലെയുള്ള ചില ഗെയിമുകളുണ്ട് അതായത് നമ്മുടെ ഇന്റെലെക്ച്വല് ഇന്റെലെക്ച്വൽ ആയിട്ടുള്ള തിങ്കിംഗ് കൂട്ടുക സുഡോക്കു പോലെയുള്ള ഗെയിമുകൾ നമ്മുടെ മാത്തമാറ്റിക്കല് എബിലിറ്റി കൂട്ടുക അങ്ങനെ വീഡിയോ ഗെയിമുകള് വെറുതെ കേവലം സമയം കൊല്ലികൾ അല്ല സമയം കൊല്ലികളുണ്ട് അവയെ മാറ്റപ്പെടണം അല്ലാതെ നല്ല വീഡിയോ ഗെയിമുകളും ഉണ്ട് അവയെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും വേണം